ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി എണ്പത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തിയേഴ്